എറണാകുളം ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളും പരിപാടികളും ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എറണാകുളം നഗരത്തിൽ ഫോർട്ട് കൊച്ചിയിൽ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ കൊച്ചിൻ കാർണിവൽ നടക്കാറുണ്ട് കലാകാരന്മാരുടെ പ്രകടനങ്ങളാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാവുക പലതരം എക്സിബിഷൻ ജില്ലയിലെ മിക്ക പ്രദേശത്ത് നിന്നും ആളുകള് കൊച്ചിൻ കാർണിവൽ പങ്കെടുക്കാനെത്തും ന്യൂ ഇയർ ആഘോഷമൊക്കെ വളരെ ഫേമസാണ് അവിടുത്തെ പിന്നെ ആലുവ ശിവരാത്രി മഹോത്സവം അത് ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിലാണ് നടക്കുന്നത് പിതൃതർപ്പണത്തിനാണ് ആളുകള് അവിടെ എത്തുക ലക്ഷകണക്കിനാളുകൾ എല്ലാ വർഷവും ഇവിടെ പിതൃതർപ്പണത്തിനായിട്ട് എത്താറുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവര് മാത്രമല്ല തമിഴ് നാട് നിന്ന് പോലും ആളുകളിവിടെ എത്താറുണ്ട് ചിൽഡ്രൻസ് ഡേ പോലെയുള്ള റിപ്പബ്ലിക് ഡേ ചിൽഡ്രൻസ് ഡേ ഇത് പോലുള്ള ആഘോഷങ്ങളും നമ്മുടെ നഗരത്തില് വലിയ ആഘോഷത്തോടെ തന്നെ നടക്കാറുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് നിരവധി മത്സരങ്ങൾള് റാലികള് ഒക്കെ സംസ്ഥാനത്തില് ഉടനീളം നടക്കാറുണ്ട്